നമസ്കാരം ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ വളരെയധികം യാത്രകൾ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചും ഞങ്ങളുടെ യാത്രകൾ ബൈക്കുകളിലൂടെയായിരുന്നു ആദ്യ കാലങ്ങളിൽ ബസ്സുകളും മറ്റും യാത്രക്കു വേണ്ടി ഉപയോഗിച്ചിരുന്ന ഞങ്ങൾ പിന്നീട് ഞങ്ങളുടെ തന്നെ ബൈക്കുകളിൽ ഒക്കെയായി യാത്ര ബൈക്കുകളിലൂടെയായി യാത്ര ഞങ്ങൾ ഒരഞ്ച് പേർ ഞങ്ങൾ സ്ഥിരമായി ഒത്തു കൂടുകയും യാത്രകൾ എങ്ങനെ വേണമെന്ന് ഷെഡ്യൂൾ ചെയ്യുകയും പ്ലാൻ ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു എൻ്റെ കൂട്ടുകാരെന്നു പറയുന്ന കൂട്ടുകാർ അവർ ഞങ്ങൾ എല്ലാവരും മാസത്തിൽ ഒരിക്കൽ ഒരു യാ സ്ഥലമെങ്കിലും കവർ ചെയ്യും ക എന്നുള്ളത് രീതി ഞങ്ങൾ പിന്തുടർന്നിരുന്നു അതിനാൽ തന്നെ പല പല സ്ഥലങ്ങളും ഞങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഞങ്ങൾ യാത്ര ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ അത് ബൈക്കുകളിലൂടെയുള്ള ട്രക്കിംഗ് ഭാഗങ്ങളിലൂടെയായിരുന്നു അത് അപകടം നിറഞ്ഞതാണെന്നുണ്ടെങ്കിലും ഓഫ് റോഡുകളിലൂടെയുള്ള ട്രെക്കിങ് വളരെ നൽകുന്ന സന്തോഷവും മറ്റും പറഞ്ഞറിയിക്കാൻ ആകാത്തതാണ് അതുപോലെ തന്നെയാണ്

യാത്രകൾ പ്ലാൻ ചെയ്യുക എന്നുള്ളത് ഒരു യാത്ര പ്ലാൻ ചെയ്യുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ് എന്തെന്നാൽ ഒരു യാത്രയിലൂടെ നമ്മൾ എന്ത് എന്തെല്ലാം നേടിയെടുക്കും എന്തെല്ലാം ചെയ്യാനുണ്ട് എന്നുള്ളതെല്ലാം അതെല്ലാം രേഖപ്പെടുത്തെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇന്നത്തെ കാലത്ത് എവിടെ താമസിക്കും എവിടെ നിൽക്കും എന്നുള്ളത് ഒരു ചോദ്യ ചിഹ്നമല്ലാത്തതു കൊണ്ടു തന്നെ ഈ ചിഹ്നമല്ലെങ്കിലും ഒരു സേഫായിട്ടുള്ള സ്ഥലത്തിനു വേണ്ടി നാം യാത്രയിൽ ഒരിടം ഒഴിച്ചിടേണ്ടതുണ്ട് അതു പോലെ തന്നെയാണ് ടൈം മോനേജ്മെൻറ്റും എത്ര ദൂരെയുള്ള യാത്രയാണെന്നുണ്ടെങ്കിലും നമ്മൾ ടൈം മോനേജ്മെൻറ് വളരെയധികം കൃത്യമായി തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഞങ്ങളുടെ യാത്രകളിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള മിസ്റ്റേക്കുകളിൽ പെട്ട ഒന്നാണ് ടൈം മാനേജ്മെൻ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അത് പരിഹരി പിന്നീടുള്ള പല യാത്രകളിലും അത് പരിഹരിക്കാനായി അതുപോലെ പിന്നീടൊന്നാണ് ഫുഡ് ഭക്ഷണം എന്തു കഴിക്കണം എവിടുന്ന് കഴിക്കണം മിക്ക ആളുകളും യാത്രകളിൽ ഭക്ഷണം ഒഴിവാക്കാറില്ല എൻ്റെ കൂട്ടുകാരിൽ കുറച്ചാളുകൾ ഈടെയായിട്ട് കാശ്മീർ പോയപ്പോൾ അവർ ഭക്ഷണങ്ങൾ വളരെയധികം കുറച്ചായിട്ടായിരുന്നു ചിലവ് ചുരുക്കിയിരുന്നത് നമ്മളുടെ യാത്രകൾ നമ്മളുടെ ബജറ്റിന് ഒക്കുന്നതാക്കാൻ പല കാര്യങ്ങളും നമുക്ക് വേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് അങ്ങനെ പറയുമ്പോൾ നമ്മുടെ യാത്രയുടെ ബാക്കിയുള്ള എല്ലാ എക്സ്പെൻസുകളും നമ്മളെന്തു വാങ്ങുന്നു പിന്നെ യാത്രയിൽ അവിടെ കൊടുക്കാനുള്ള ടിക്കറ്റുകൾ ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പലതും കഴിയും അതു പോലെ വില കുറഞ്ഞ കടകൾ ഉദാഹരണത്തിന് ഡൽഹിയിലെ ചോർ ചോർ ബസാർ തുടങ്ങിയവയെല്ലാം നമ്മളുടെ യാത്രകളിൽ ഒരു ഭാഗമാക്കാവുകയും അതിന് പ്രത്യേകമായി സ്ഥലം ഒഴിച്ചിടാൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്